ആ അതെ പറഞ്ഞോളൂ എന്തായിരുന്നു മാഡം ആ ഓക്കെ ആ ഹാ ഹാ ഓക്കെ ഹം ആ ഓക്കെ മാഡം ട്രെയിൻ ആണോ വരുക മുപ്പത് പേരുണ്ടല്ലേ മുപ്പത് പേരുണ്ടെങ്കിൽ നമുക്ക് ക്യാബ് ഇപ്പോൾ ബസ് എന്തെങ്കിലും വേണ്ടിവരില്ലേ മാഡം ട്രാവലർ ഇപ്പോൾ മുപ്പത് സീറ്റ് ആ നോക്കട്ടെ മാഡം ഉണ്ടാവും ഓക്കെ അതും നോക്കട്ടെ മാഡത്തിന് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് കറക്റ്റ് ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞുതരാം മാഡം എന്നത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞത് ഇരുപത്തി രണ്ടാം തീയതി ഈവെനിംഗ് ഓക്കെ അപ്പോൾ അത് എന്തായാലും നോക്കിയിട്ട് ഞാൻ അറേഞ്ച് ചെയ്യാം വണ്ടി ഞാൻ മാഡത്തിനോടും കൂടെ ചോദിച്ചിട്ട് എന്താണ് വേണ്ടതെന്നു വെച്ചാൽ അതിനനുസരിച്ചു ഞാൻ ചെയ്തുതരാം ഇരുപത്തി രണ്ടാം തീയതി ടൈം കാര്യങ്ങളൊക്കെ എപ്പോഴായിരിക്കും മാഡം

ആ ഓക്കെ അപ്പം മാഡം റൂംസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നോ ആ ഓക്കെ ആ മ് മുപ്പത് പേർക്കുള്ളത് വേണം അല്ലേ മ് അപ്പോൾ ഓ അപ്പോൾ ഒരു പതിനഞ്ച് റൂം എങ്കിലും വേണ്ടിവരും അല്ലേ ആ ഓക്കെ അപ്പോൾ ആ മാഡം എങ്ങനെയാണ് ബഡ്ജറ്റ് നോക്കിയിട്ടാണോ ബഡ്ജ വിഷയമില്ല ഓക്കെ മാഡം എന്നാൽ ഞാനത് അറേഞ്ച് ചെയ്തോളാം ആഹ് ആയിക്കോട്ടെ മാഡം ഓക്കെ ആ ചെയ്തോ ചെയ്തോ